ആ പറയൂ പറയൂ കേൾക്കാം

ആ പറയു പറയു നമുക്കിവിടെ വർഷത്തേക്കാണ് ട്രെയിനിങ്ങായിട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഒരു വർഷത്തേക്കുണ്ട് മൂന്ന് മാസമുണ്ട് ആറ് മാസമുണ്ട് അപ്പം ഇപ്പം ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് ഓഫറിൽ നമുക്കൊരു വർഷത്തെ പ്ലാന് ഒരു ആറായിരം രൂപക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് മാസത്തേക്കായിട്ട് ആയിരത്തഞ്ഞൂറ് രൂപയാണ് ഫീസ് വരുന്നത് ആറ് മാസം എടുക്കുമ്പോഴത്തേക്കും നമുക്കൊരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ മൂവായിരത്തഞ്ഞൂറ് രൂപ വരും അതിൻ്റെ കൂടെ നമുക്ക് ചേരുന്ന ഒരു മെംബർഷിപ് ചാർജ്ജും കൂടെ വരുന്നുണ്ട് ഒരു അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ മെംബർഷിപ് ചാർജ്ജ് ആ ടൈമിംഗ് നമുക്ക് രാവിലെ അഞ്ച് അര തൊട്ട് ഒൻപത് അര വരെയാണ് രാവിലത്തെ സമയം വരുന്നത് അ പിന്നെ എല്ലാവർക്കും കോമണായിട്ടുള്ള ഒരു ട്രയിനറാണുള്ളത് പിന്നെ വൈകുന്നേരം അഞ്ച് മണി തൊട്ട് രാത്രി എട്ട് അര വരെയും ജിമ്മ് അവൈലബിളാണ്

ട്വൻറ്റി ഫോർ അവേഴ്സും നമുക്ക് ഫെസിലിറ്റി ഇല്ല നൈറ്റ് നിങ്ങൾക്ക് എത്ര മണീന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് അഡ്ജസ്റ്റ ചെയ്യാം വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം ചെസ്റ്റും ആക്സോ ആയിരിക്കും നിങ്ങൾക്ക് ആവശ്യം അല്ലേ ചെസ്റ്റും ആക്സും കൂടാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ അപ്പോഴത്തേക്കും നമുക്ക് താങ്കളുടെ ബോഡി വെയിറ്റ് ഗെയിൻ ചെയ്യാനാണോ വെയിറ്റ് ലോസ് ചെയ്യാനാണോ ആഗ്രഹിക്കുന്നത് ആ അപ്പം നമുക്ക് ചെറിയ രീതിയിൽ പ്രോട്ടീനൊക്കെ കൺസ്യും ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ അല്ല പ്രോട്ടീൻ പൗഡർ എടുക്കണ്ട നാച്ചുറൽ പ്രോട്ടീൻസായിട്ടുള്ള ഫുഡിൽ നിന്നുള്ള പ്രോട്ടീൻ നമ്മൾ കൂടുതലായിട്ട് കഴിക്കേണ്ടതായിട്ട് വരും അപ്പം നമുക്ക് പ്രോട്ടീൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മസിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തുള്ളു നമുക്ക് ജിമ്മിലൂടെ എക്സർസൈസ് ചെയ്തോണ്ട് നിങ്ങളുടെ മസിൽസിനെ ബ്രേക്ക് ചെയ്യാനെ പറ്റുള്ളു അത് മസിൽ ബിൽഡ് ചെയ്യണോന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോട്ടീൻ ആവശ്യമാണ് ബോഡിക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ നമ്മൾ കൊടുത്തെ പറ്റത്തുള്ളു പ്രോട്ടീൻ പൗഡർ അല്ലെങ്കിൽ വേ പൗഡർ എടുക്കാനായിട്ട് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നാച്ചുറലായിട്ടുള്ള പ്രോട്ടീൻ നമുക്ക് എഗ്ഗിൽ നിന്നും ചിക്കൻ ബ്രെസ്റ്റ് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഇത് സോയാ ചങ്ക്സ് അങ്ങനത്തെ കുറെ ഫുഡ് ഐറ്റംസ് നമ്മുടെ ഡയറ്റിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് പ്രോട്ടീൻസ് ബോഡിയിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും അങ്ങനെ പ്രോട്ടീൻ എത്തിക്കുന്നത് വഴി നമുക്ക് മസിൽ ബിൽഡ് ചെയ്യാനായിട്ടുള്ള എളുപ്പം സാധിക്കും ഓക്കെ ഓക്കെ നിങ്ങൾക്ക് ജിമ്മിൽ വന്ന് കോണ്ടാക്ട ചെയ്താൽ മതി ആ അഡ്മിഷൻസൊക്കെ ശരി